ഞാൻ ഡ്രോയിങ് ക്ലാസ് എടുത്തിട്ടില്ല ഞാനൊരു ശിൽപ്പശാല എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് മോട്ടിവേഷൻ നല്കാൻ എന്നതുപോലെയുള്ള ശില്പശാലയും അതേപോലെ അമ്മമാർക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് പോലെയുള്ള ശിൽപ്പശാലയും എടുത്തിട്ടുണ്ട് അതായത് ഈ പത്തു മുതൽ ഇരുപത് വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്കുള്ള ക്ലാസ്സാണ് ഞാൻ എടുത്തിരുന്നത് ശില്പശാലയാണ് ഞാൻ എടുത്തിരുന്നത് അതേപോലെ തന്നെ അമ്മമാർക്കും അതായത് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ള അമ്മമാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് എൻ്റെ ഒരു വലിയ അനുഭവം തന്നെയാണ് കാലത്ത് ഒമ്പത് മണിമുതൽ വൈകുന്നേരം നാല് മണി വരെയായിരുന്നു ശിൽപ്പശാല അതിൽ ആദ്യം തന്നെ എല്ലാ രക്ഷിതാക്കളെയും എല്ലാ കുഞ്ഞുങ്ങളേയും സ്വാഗതം ചെയ്ത് കൊണ്ട് എല്ലാവർക്കും സ്വാഗതം ഏകിക്കൊണ്ട് ഞാൻ ഒരു ചെറിയ ആ ആമുഖ പ്രസംഗം നടത്തി അതിന് ശേഷം എല്ലാവരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്തു എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുകയും ഓരോ വ്യക്തികളുടെയും ഓരോ വ്യക്തികൾക്കും അവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളേയും സ്വന്തമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തുകയും എല്ലാവർക്കും സഭാകമ്പം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള പേടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയും പത്ത് മിനിറ്റ് അതിന് വേണ്ടി ക്ലാസ് എടുത്തു പിന്നീട് എന്തെല്ലാം ഭക്ഷണം കഴിക്കണം എങ്ങനെയെല്ലാം ഭക്ഷണം കഴിക്കണം കാലത്തു മുതൽ ഒരു കുട്ടി എഴുന്നേറ്റ് വൈകുന്നേരം ഉറങ്ങുന്നത് വരേയുള്ള ചെയ്തികൾ എന്തെക്കെയാവണം അത് ഏത് തരത്തിൽ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞ് കൊടുത്തു കാലത്ത് അവർക്ക് ഒരു പതിനൊന്നരയാകുമ്പോൾ അവർക്ക് റിഫ്രഷ് ആകാൻ വേണ്ടി ബിസ്ക്കറ്റും ചായയും കൊടുത്തു ഉച്ചക്ക് ഞാൻ തന്നേയും എല്ലാ കുട്ടികൾക്കും ഊണ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു വീണ്ടും വൈകു മൂന്ന് മണിക്ക് ചായയും ബിസ്കറ്റും വടയുമെല്ലാം കൊടുത്തു അതിന് ശേഷം നാല് മണിയോട് കൂടി ഈ ശിൽപ്പശാല നല്ല രീതിയിൽ തന്നെ സമാ സമാപിപ്പിച്ചു സമാപനമായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു എല്ലാ കുട്ടികൾക്കും അവരുടേതായ അനുഭവങ്ങളും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഡാൻസ് പാട്ട് എന്നീ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനുമുള്ള വേദി ഞാൻ ഒരുക്കി കൊടുത്തു അമ്മമാർക്കും വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാൻ ഈ അവസരത്തിൽ പഠി എനിക്ക് പറ്റിയിരുന്നു കുറേ അമ്മമാരുടെ പരാതിയാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല നല്ല പോലെ ഉറങ്ങുന്നില്ല നല്ല രീതിയിൽ പഠിക്കുന്നില്ല നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല അങ്ങനെ അവരുടേതായ കുറേ പ്രശ്നങ്ങളുമെല്ലാം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും അതിനുള്ള എല്ലാ എല്ലാ ഉപാധികളും എല്ലാ എന്തെല്ലാം ചെയ്താലാണ് ഈ പ്രശ്ങ്ങൾ തീരുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിക്കുകയും എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ നാല് മണിക്ക് ശിൽപ്പശാല അവസാനിപ്പിക്കുകയും ചെയ്തു